ഞങ്ങൾ ഞങ്ങളുടെ ടീമുമായിട്ടൊരു ടീം ബിൽഡിംഗ് സംഘടിപ്പിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായൊരു നാടകത്തിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഉൾപ്പെടെ ടീം വെള്ളി ഈവൻ്റിനും ഈ അവസരത്തിനായി നിങ്ങൾ തിരഞ്ഞെടുത്ത നാടകവും പരാമർശിക്കാ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കൂടുതലായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് തച്ചനെന്നു പറഞ്ഞൊരു നാടകമാണ് ഈ ഒരു തച്ചൻ എന്നു പറഞ്ഞ നാടകം നമ്മുടെ ക്രിസ്തീയ ഇതിലെ ഒരു വിശുദ്ധ ഔസേപ്പ് പിതാവിനെയും പരിശുദ്ധ മാതാവിനെയും അടിസ്ഥാനത്തിലുള്ള ഒരു നാടകമാണ് ഇത് തികച്ചും ഒരു ക്രിസ്തീയ നാടകമാണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ടീം മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രദർശനം ആയാണ് കാണുന്നെ കാര്യം ഞങ്ങളുടെ ഈ ഒരു ഒരു മീറ്റിംഗ് കൂടുതലായിട്ടും ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും ഇതൊരു സെക്കുലർ നാടകം തന്നെയാണ് ആ മതിനിരപേക്ഷ ഒരു നാടകം തന്നെയാണ് കാര്യം മതത്തിനെക്കാളുപരി നാടകത്തെ ആസ്വദിക്കുന്നവർക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ബുക്ക് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ടിക്കറ്റുകൾ ഞങ്ങൾ ബുക്ക്മൈഷോ എന്നു പറഞ്ഞ ആപ്പിലൂടെയാണിത് പ്രദർശിപ്പിക്കാൻ ക്കുന്നത് കൂടുതലായിട്ടും ഞങ്ങളൊരു ക്രിസ്തീയ നാട്ടിലായതുകൊണ്ട് തന്നെ അതായത് കേരളത്തിൻ്റെ ഏറ്റവും തനതായിട്ടുള്ള ഒരു നഗരമായിട്ടുള്ള കോട്ടയത്തിൽ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും ഹൃദയ ഭാഗത്തുള്ള പാലാ എന്നു പറഞ്ഞൊരു നഗര ഇവിടെത്തന്നെ കൂടുതലായിട്ട് ക്രിസ്ത്യാനികള് തന്നെയാണ് ബുക്മൈഷോയിൽ ആപ്പിലൂടെ ഈ ഒരു ടിക്കറ്റുകൾ വിൽക്കുകയും അങ്ങനെ ഈയൊരു ഒരു നാടകം കാണുവാനായിട്ട് അങ്ങനെ സാധിക്കുന്നതുമാണ് നാടകം കൂടുതലായിട്ടും ഈ ഒരു രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത്